എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ മലയാള മലയാള ഭാഷയിലെ രസകരമായ ഒരു രണ്ട് വാക്കാണ് ചിരിയും സന്തോഷവും കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫില് നമ്മുക്ക് എന്ത് കാര്യം വന്നാലും സന്തോഷിക്കാൻ പറ്റുന്ന ഒരിതാണ് ഇപ്പോൾ ഒരു ഒരു ബർത്തടെയോ അല്ലെങ്കിൽ നമ്മടെ നമ്മുടെ ലൈഫിൽ നമ്മള് ആഗ്രഹിക്കുന്ന എന്ത് കാര്യം നടന്നാലും നമുക്ക് ആദ്യം വരുന്നത് സന്തോഷായിരിക്കും അപ്പോ ആ ഒരു സന്തോഷംന്ന് പറഞ്ഞ വാക്ക് നമക്ക് എപ്പഴും നമ്മടെ ജീവിതത്തില് എപ്പഴും ഉണ്ടെങ്കി നമക്ക് അത്രേയും സന്തോഷമായിരിക്കും അതാ അതാണ് അതിൻ്റൊരിത് അതോണ്ട് എനിക്ക് സന്തോഷം എന്ന വാക്ക് ഭയങ്കര ഇഷ്ടാണ് അതുപോലെത്തന്നെ ചിരി നമക്ക് ഇഷ്ടപെട്ട കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും അല്ലെങ്കില് ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോഴൊക്കെ നമക്ക് ചിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവ നമ്മടെ നമ്മുടെ മുഖത്തെ ബ്യൂട്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ചിരിയാണ് ഏത് ആള് ഒന്ന് ചിരിച്ചാലും അത് കാണാൻ ഭയങ്കര മനോഹരം ആയിരിക്കും അപ്പം ചിരിയും സന്തോഷവും ഈ രണ്ട് വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് വാക്ക് അതാണ്